വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന കൃഷി ഉൽപ്പന്നങ്ങളൊന്നും തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല അത് എല്ലാം തന്നെ വിഷവിമു വിഷ നിമി നിമിത്തമാണ് എല്ലാം നമുക്ക് കിട്ടുന്നത് അത് ഇല്ലാതാക്കാൻ വേണ്ടി സ്വയം കൃഷി ചെയ്യാനായിട്ട് കൃഷി പാടങ്ങളെല്ലാം നികത്തി വയലുകളെല്ലാം നികത്തിയിട്ട് എല്ലാവരും തന്നെ ഇപ്പോൾ വീടുകള് വെക്കുന്നു മറ്റ് കൃഷികള് ചെയ്യുന്നു പാടങ്ങളെല്ലാം നികത്തി കളയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് കൃഷി നമുക്ക് ഇതാകുന്നില്ല കൃഷി ഒരിക്കലും വിജയിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമുക്ക് വിഷമുള്ള കൃഷികൾ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് കൂടുതലും ലഭിക്കുന്നത് അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മള് നമ്മുടേതായ കൃഷി സ്ഥലങ്ങൾ നമ്മൾ തന്നെ വേറെ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കൂടുതലും വിഷം ഇല്ലാത്ത നല്ല ക കാർഷിക ഉൽപ്പന്നങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും അത് വിശ്വസിച്ച് കഴിക്കാനും പറ്റും അല്ലാതെ നമ്മൾക്ക് തന്നെയായിട്ട് ഒരിക്കലും വിഷം ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ കിട്ടണമെങ്കിൽ നമ്മള് തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് കൃഷിയെ പറ്റിയോ കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്നോ ഒന്നും അറിയില്ല വിത്തെങ്ങനെയെന്നോ പാടമെങ്ങനെയെന്നോ യാതൊന്നും അവർക്കറിയില്ല അവർക്ക് എല്ലാം കടയിൽ നിന്ന് വാങ്ങുന്ന സാധനമാണ് കൂടുതലും അവര് ഉപയോഗിക്കുന്നത് അവരുപയോഗിക്കുന്ന സാധനം വിഷമുള്ളതാണോ വിഷം ഇലാത്തതാണോ എന്ന് പോലും അവര് ചിന്തിക്കുന്നില്ല ഏത് സമയം അവർക്ക് ഭക്ഷണം എന്തായാലും രുചികരമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കൂടുതലും ഉപയോഗിക്കുന്നത് കടകളിൽ നിന്ന് വാങ്ങിക്കു ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് പക്ഷെ കുട്ടികളെ പോലുള്ള ഇപ്പോഴത്തെ തലമുറയോട് ഇത് പറഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവില്ല അവർക്ക് എന്ത് സാധനമാണേലും രുചികരമായി കിട്ടണം എന്ന് മാത്രമേ ഉള്ളു ഒത്തിരി കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കൃഷി സാധനങ്ങളാണെങ്കിൽ പോലും അവർക്ക് കടകളിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളോടാണ് താല്പര്യം കൂടുതല് ഏത് സമയവും കൃഷി ചെയ്ത് ഉൽപ്പന്നങ്ങളുണ്ടാക്കാൻ ഇപ്പോഴുള്ള തലമുറയ്ക്ക് പറ്റും കുറച്ചൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവരെ കൃഷി ചെയ്യാനാരുണ്ടാവില്ല ഈ ഒരു തലമുറ കൂടി കാണുവായിരിക്കും കൃഷി ചെയ്യാനായിട്ട് അത് കഴിയുമ്പോൾ നമ്മുടേതായ കുട്ടികളാരും ഇവിടെ ഇ നമ്മുടെ കുട്ടികളാരും ഇവിടെ ജീവി ഇപ്പോൾ ഇവിടെയില്ല എല്ലാവരും വിദേശത്ത് പോയാണ് ജീവിക്കുന്നത് അപ്പം അവർക്കവിടെ ഉണ്ടാ ഉള്ള ഭക്ഷണങ്ങളും സാധനങ്ങളും കഴിച്ച് ജീവിക്കാനാണ് അവർക്കിഷ്ടം അപ്പം നമുക്കിവിടെ എന്നും നല്ല കൃഷികൾ നല്ല വിളവുകൾ നൽകുന്ന നല്ല കൃഷികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കും താല്പര്യമില്ല നല്ല വിളകൾ ഉണ്ടാകണമെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മള് കൃഷി ചെയ്താൽ തന്നെ നല്ല വിളകളുണ്ടാകണമെങ്കിൽ അതിന് കീടനാശിനികളൊക്കെ ഉപയോഗിക്കേണ്ടതുണ്ട് അത് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുവോന്ന് തന്നെ നമുക്ക് ഉറപ്പില്ല അത് കഴിക്കുന്നത് കൊണ്ട് ഒത്തിരി പേര് രോഗികളായി മാറുന്നുണ്ട് അത് വിശ്വസിക്കാൻ കഴിക്കാന് വിശ്വസിച്ച് കഴിക്കാനും പറ്റാതെ വരുന്നുണ്ട് പിന്നെ നമുക്ക് കിട്ടുന്നില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് നമ്മളാരും കൃഷി ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ല ഇപ്പോളത്തെ തലമുറക്ക് അ ഒട്ടും താല്പര്യമില്ല കൃഷി ചെയ്യാനായിട്ട് പിന്നെ നമ്മള് നിർബന്ധിച്ച് കൃഷി ചെയ്താൽ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം കൃഷി ചെയ്തുണ്ടാക്കുന്നു അത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നു കാച്ചില് ചേമ്പ് ചേന കപ്പ എന്നിവയൊക്കെ നമ്മുടെ പറമ്പുകളിൽ ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് ആ കൃഷി ചെയ്യുന്ന സാധനം വിശ്വസിച്ച് കഴിക്കാൻ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അതിനകത്ത് നമ്മള് തന്നെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും വിഷം ഉണ്ടെന്ന് പറയാൻ പറ്റുകയില്ല വിഷമില്ലാത്ത സാധനങ്ങളായിട്ട് കിട്ടുന്നത് നമ്മള് തന്നെ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് അല്ലാതെ നമ്മള് കടകളിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളെല്ലാം വിഷ വിഷമയമാണ് അത് വിശ്വസിച്ച് കഴിക്കാൻ നമുക്ക് പറ്റില്ല അത് നമുക്കൊരിക്കലും ലഭിക്കുന്നുമില്ല എന്താണേലും ഓരോ സാധനങ്ങളും നമ്മളുടെ രീതിയിൽ തന്നെ നമ്മള് കൃഷി ചെയ്തു ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളുടെ തലമുറയ്ക്കും നമ്മൾക്കും വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം രോഗത്തിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സാഹചര്യമാണ് ഇപ്പം എന്തുകൊണ്ടാണ് കൃഷി ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ലഭിക്കാത്തത് നമ്മള് തന്നെ കൃഷി ചെയ്തുണ്ടാക്കി എടുത്താൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങേണ്ടി വരും കടകളിൽ നിന്ന് വാങ്ങുന്നത് വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്തതാണ് എങ്കിലും കഴിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കഴിക്കുക തന്നെ വേണം അതുകൊണ്ട് അങ്ങനെയൊക്കെ പോകുന്നു വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന കൃഷി ഉൽപ്പന്നങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും വളരെ കുറവാണ് നമ്മുടെ തലമുറയ്ക്ക് കൃഷി ചെയ്യാനായിട്ട് പഠിപ്പിച്ച് കൊടുക്കേണ്ടിയിരിക്കുന്നു അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും അവർക്ക് രുചികരമായ ഭക്ഷണം കിട്ടണത് കടയിൽ തന്നെയാണെന്ന് പറഞ്ഞ് മക്കളൊക്കെ അങ്ങനെ പോയി വാങ്ങി കഴിക്കുകയാണ് ചെയ്യുന്നത് നമ്മളുണ്ടാക്കുന്ന കാച്ചിലോ ചേമ്പോ ചേനയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഇഷ്ടമില്ല അത് കാര്യം വിഷമില്ലാത്ത സാധനമാണ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ അത് മക്കൾക്കാർക്കും ഇഷ്ടമില്ല മക്കളെ മക്കൾക്കെല്ലാം കടകളിൽന്ന് വാങ്ങുന്നതിനോടാണ് താല്പര്യം കൂടുതല് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാവുന്ന കപ്പ ചേമ്പ് ചേന അങ്ങനെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മള് കൃഷി ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് ശകലം പറമ്പൊക്കെ ഉള്ളവര് എല്ലാവരും തന്നെ സ്ഥലത്ത് സ്വന്തം സ്ഥലത്ത് സ്വന്തമായി തന്നെ കൃഷി ചെയ്ത് അത് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് കഴിയുന്നത്